ഇന്നത്തെ നമ്മുടെ മലയാളി ധാരാളം എനിക്കിഷ്ടപ്പെട്ട ധാരാളം എഴുത്തുകാരും കവികളും ഇന്നത്തെ കാലത്തില്ലെങ്കിലും ഇന്നത്തെ കാലത്തുണ്ട് എന്നാലും അത്ര പ്രശസ്തരല്ലെങ്കിൽപ്പോലും പണ്ടത്തെ കവികളും എഴുത്തുകാരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് വളരെ നല്ല രൂപത്തില് തന്നെ വളരെ പ്രശസ്തരും അതിലേറെ വളരെ കഴിവുകളുമൊക്കെ അതായത് നൈപുണ്യമുള്ള കഴിവുകളുള്ള ആളുകളായിരുന്നു പണ്ടുള്ളവരൊക്കെ ഉദാഹരണത്തിന് പറയുകയാണെങ്കില് തുഞ്ചത്ത് എഴുത്തച്ഛന് അതേപോലെ തന്നെ കുഞ്ചന് നമ്പ്യാര് അതുപോലെ പിന്നെ അതുപോലെ തന്നെ ഒ എന് വി അങ്ങനെ പറയുന്ന ധാരാളം കവികളുണ്ട് ഇംഗ്ലീഷിലാണെങ്കില്ത്തന്നെ ഷേയിക്സ്പിയര് അല്ലെങ്കില് ആ അങ്ങനെ ധാരാളം അപ്പോള് മലയാളി കവികളെന്ന് പറയുമ്പോള് പണ്ടത്തെക്കാളേറെ അതായത് ഇപ്പോള് നമ്മുടെ ഈ തുഞ്ചനെന്ന് പറയുകയാണെങ്കില് തുഞ്ചത്തെഴുത്തച്ഛന് നമ്മുടെ തിരൂരുള്ളയാളാണ് അപ്പോള് തിരൂരൊക്കെ എന്ത് പൊതുവേ എന്ത് പറയാറുണ്ട് വളരെ നല്ല ഭാഷയുള്ള നാടെന്ന് പറയുകയാണെങ്കില് തിരൂരാണ് കാരണമെന്താണ് അവിടെയാണ് തുഞ്ചത്തെഴുത്തച്ഛനുള്ളത് അങ്ങനെ ഓരോ സമയത്ത് അങ്ങനെ ഇനിയിപ്പോള് എവിടെയുണ്ട് നമ്മുടെ ആലപ്പുഴയിലൊക്കെ നല്ല ഭാഷയാണെന്ന് പറയാറുണ്ട് കാരണം അവിടെ ആരുണ്ട് മറ്റേ അദ്ദേഹത്തിന്റെ പേരിപ്പോള് എനിക്കോര്മയില്ല അങ്ങനെ ധാരാളം കവികൾ അതായത് ഇപ്പോള് ഒരു ഉദാഹരണത്തിനൊരു കവിത പറയുകയാണെന്നുണ്ടെങ്കില് മാമ്പഴം എനിക്കെപ്പോഴും എൻ്റെ മനസ്സില് എപ്പോഴും നിറഞ്ഞുനില്ക്കുന്ന ഒരു കവിതയാണ് മാമ്പഴമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതായത് ഒരമ്മ ഒരു മകനോട് ഇങ്ങനെയൊരു മാമ്പഴം എടുത്തതിൻ്റെ പേരിലിങ്ങനെ ശാസിക്കുന്നൊരു കവിതയാണ് ആ കവിതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ കവിതയില് തുടക്കം ഇപ്പോഴും ഓര്മയുണ്ട് അങ്കണത്തൈമാവില് നിന്നാദ്യത്തെ പഴം വീഴ്കെ അങ്കണത്തൈ അങ്ങനെയൊരു തുടങ്ങുന്നൊരു കവിതയാണ് അതായത് അത്രയ്ക്ക് അങ്കണത്തൈമാവില് അതിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയാണ് ആ എന്ത് അങ്കണത്തിൽ നിന്നുള്ള കുറേ തൈകൾ അതായത് മാവിൻ്റെ കുറേ തൈകളുണ്ട് അതിൽ നിന്ന് ആദ്യത്തെയൊരു പഴം വീണിട്ടെന്തായി ഈ മോന് ചെന്നിട്ട് അതെടുക്കുകയാണ് അങ്ങനെയെടുത്തിട്ട് അത് കഴിക്കുമ്പോള് എന്താണ് ഉണ്ടാക്കുന്ന അമ്മ എന്താണ് ചൂടാകുന്നൊരു സന്ദർഭം അതാണ് ആ കവിതയിലൂടെ ഉടനിളം എന്താക്കുന്നത് വിവരിക്കുന്നത് ആ കവിതയിലൊക്കെ വളരെ എനിക്കെപ്പോഴും ഇത് കുറേ ധാരാളം എന്താണ് കവിതകള് ആ വരികളൊക്കെ ഇപ്പോഴും മനസ്സിന്റെയുള്ളില് കൊള്ളുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്വര്ഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപ്പാലം പണിത പ്രവാചക അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഇസ്ലാമിൻ്റെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ് ഈ കവിത പക്ഷെ ഇതെഴുതിയതൊരു മുസ്ലിം പോലുമല്ല ഇതൊരു എന്താണ് ഒരു അമുസ്ലിമായ ഒരാളെഴുതിയ ഒരു കവിത കൂടിയാണ് എന്താണ് ഈ കവിത അദ്ദേഹം എന്താണ് ഈ നബിത്തങ്ങളെക്കുറിച്ച് പഠിച്ച് പഠിച്ച് അവസാനം എന്താക്കി നബിത്തങ്ങളെക്കറിച്ച് എഴുതുകയാണ് സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർഗത്തില് നിന്നും ഹൃദയത്തിലേക്ക് ഒരു സ്വർണ്ണനൂല്പ്പാലം പണിത പ്രവാചക അതിന്റെ അര്ത്ഥമെന്താണ് ഒരു കവി എഴുതുകയാണ് നബിത്തങ്ങളെക്കുറിച്ച് എഴുതുന്ന ഒരു കവിതയാണ് ഈ എന്താണ് ഈ ഞാനിപ്പോള് പാടിയ രണ്ട് വരി കവിത അങ്ങനെ കവികളെന്താണ് പലരും പലരുടെയും മനസ്സിലും എപ്പോഴും എന്താണ് ഈ കവിത അല്ലെങ്കില് കഥ കഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ധാരാളം കഥയെഴുത്തുകാരുണ്ട് ഞാനിപ്പോള് നേരത്തെ പറഞ്ഞ ഓണപ്പള്ളിയൊക്കെ അതിനേറ്റവും ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ കഥയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് വളരെ എന്താണ് പ്രശസ്തമാണ് അതിലേറെയെന്താണ് നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കവിതയെന്ന് പറയുകയാണെങ്കില് പിന്നെ അതുപോലെ തന്നെ ധാരാളം കവികള് വേറെയുണ്ട് കവിമാര് എഴുത്തുകാരൊക്കെ വേറെയും ധാരാളമുണ്ട് അത് ഇന്നത്തെ കാലത്തുമുണ്ട് പക്ഷേ അവര് എന്താകുന്നില്ല ഇന്നത്തെ കാലത്ത് പറയുകയാണെന്നുണ്ടെങ്കില് എവിടേക്ക് നോക്കിയാലും ഇപ്പോള് ഒരു വിദ്യാർത്ഥി തന്നെ പഠിക്കുന്നതുതന്നെ ചിലപ്പോള് ഇങ്ങനത്തെ കവിതയെഴുതാന് കഥയെഴുതാന് അങ്ങനെയൊക്കെയായിട്ട് എവിടെ നോക്കിയാലും കവികളുള്ളതുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാരൊന്നും അറിയപ്പെടാത്തത് പക്ഷെ എന്നാലും ഇന്നത്തെക്കാലത്തും കവികളും എഴുത്തുകാരുമുണ്ടെന്നുള്ളതാണ് വാസ്തവം